ഇപ്പോൾ കാലാവസ്ഥയും സന്ദർഭമൊക്കെ നോക്കിയിട്ട് പറയുവാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ വേനൽ കാലങ്ങളിലാണ് സഞ്ചാരികൾ വരേണ്ടത് കാരണമെന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയങ്ങളിൽ എല്ലാം ഏകദേശം ഓപ്പൺ ആയിരിക്കും നമുക്ക് ഇപ്പോൾ കുറുവ ദ്വീപാണെങ്കിലും പിന്നെ മീൻമുട്ടി വാട്ടർ വാ വാട്ടർ ച വാട്ടർഫോൾസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശുപാർശ ചെയ്യുന്നത് അതായത് ഒരു വേനൽക്കാലം ഒരു ഏപ്രിൽ ഏപ്രിൽ ടു ഒരു ആ ടൈമിൽ ഏപ്രിൽ ജനുവരി ഫെബ്രുവരി ഡിസംബർ ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്ക് എൻജോയ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന ഒരു ടൈം ആണ് നമുക്കിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നതാണ് കാരണം വെള്ളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ കുറവായിരിക്കും അപ്പം നല്ല രീതിയിൽ നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലത് ആ സമയത്ത് ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉത്സവം ഒക്കെ നടക്കുന്നത് ഒരു വേനൽ ടൈമിൽ ആയിരിക്കും കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ടൈമിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളത്തിലായിരിക്കും ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെ മതമേളകൾ ഇതൊക്കെ നടക്കുന്നത് വേനൽ ടൈമിലായിരിക്കും